ഹലോ ഞാൻ വിമാന കമ്പനീലേക്കാണ് വിളിക്കുന്നത് ഇന്ന് അടുത്ത മാസം മുപ്പതാം തിയ്യതി ഞാൻ വിദേശാത്ര പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓൺലൈൻ ബുക്കിംഗ് വിസ ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെയതിന് അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എപ്പോഴാണെൻ്റെ യാത്ര ശരിയാകുന്നത് ഫ്ലൈറ്റ് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇത് വിളിക്കുന്നത് വിശദമായ വിവരങ്ങൾ നൽകുന്നതിനായി എന്നെ സഹായിക്കുമെന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു